ഹായ് എന്നോട് പറഞ്ഞിരിക്കുന്നത് പാസഞ്ചർ ബസ്സിനെക്കുറച്ച് വിവരിക്കാനാണ് അപ്പോൾ പാസഞ്ചർ ബസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന പാസഞ്ചർ ബസ്സെന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്നതും കെ എസ് ആർ ടി സി ബസ്സ് തന്നെയാണ് വെള്ളയും നീലയും കളറിലാണ് ആ ബസ്സ് ബസ്സിനെ കാണാൻ കാണാൻ ഇരിക്കുന്നത് ഏറ്റവും മുൻവശത്ത് ഡ്രൈവറിൻ്റെ സീറ്റ് അതോട് ചേർന്നു തന്നെ സ്റ്റോറേജ് ബോക്സ് പിന്നെ പുറകിലേക്കാണ് ആളുകൾ ഇരിക്കുന്ന സീറ്റുകൾ വരുന്നത് അത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ചിലേറെ സീറ്റുകൾ ഒരു ബസ്സിനുള്ളിൽ കാണും രണ്ടുപേർക്ക് ഇരിക്കുന്ന സീറ്റുകളാണ് ബസ്സിനുള്ളത് രണ്ടുപേർക്കും മൂന്നുപേർക്കും ഇരിക്കാൻ കഴിയുന്ന സീറ്റുകളുള്ള ബസ്സുകളും ഉണ്ട് അതിൽ തന്നെ സീറ്റുകൾക്ക് റിസർവേഷനുമുണ്ട് ഇന്ന സീറ്റിൽ ഇന്ന ആൾ ഇരിക്കണം എന്ന് അതായത് ബസ്സിൽ കയറുന്ന ആർക്ക് വേണോ ഏത് സീറ്റിൽ വേണോ ഇരിക്കാം എന്നാൽ മുതിർന്ന ആൾ വന്നു കഴിഞ്ഞാൽ മുതിർന്ന ആളെന്ന് എഴുതിയിരിക്കുന്ന സീറ്റിലാണ് പ്രായം കുറഞ്ഞൊരു വ്യക്തി ഇരിക്കുന്നതെങ്കിൽ അവർ എഴുന്നേറ്റ് മാറി മുതിർന്ന ആൾക്ക് സീറ്റ് കൊടുക്കണം അതുപോലെതന്നെ ഗർഭിണികൾ ബസ്സില് കയറുകയോ കൈക്കുഞ്ഞുമായി അമ്മമാർ ബസ്സിൽ കയറുകയോ ചെയ്തു കഴിഞ്ഞാലും ആ സീറ്റുകൾ അവർക്ക് വിട്ടു നൽകണം കാലില്ലാത്ത ആൾ ഭിന്നശേഷി ഭിന്നശേഷിക്കാർ വയസ്സായവർ അമ്മയും കൈകുഞ്ഞും വൃദ്ധ വൃദ്ധജനങ്ങൾ അങ്ങനെ പിന്നെ സ്ത്രീകളാണെങ്കിലും എഴുന്നേറ്റ് മാറിക്കൊടുക്കണം എന്നുള്ള നിയമം ഉണ്ട് അവർക്ക് അവരുടെ സീറ്റിന് വേണ്ടിയിട്ട് ചോദിക്കാം ഞങ്ങളുടെ സീറ്റാണ് മാറി തരിക എന്ന് പറയാനുള്ള അവകാശമുണ്ട് അതുപോലെതന്നെ ഡീസലിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഇഡനവില കൂടിയതുകൊണ്ട് തന്നെ മിനിമം ചാർജൊക്കെ ബസ്സിന് കൂടി ഒക്കെ വരുന്നു വരുന്നുണ്ട് അതുപോലെ ഞാൻ ബസ്സിൽ ഈ ഇടയ്ക്ക് നെയ്യാറ്റിൻകര പോയിട്ടുണ്ടായിരുന്നു ഇവിടെനിന്ന് ഏകദേശം നാല്പത്തേഴ് കിലോമീറ്ററോളം സഞ്ചരിക്കാനുണ്ട് കിഴക്കേകോട്ടയിൽ നിന്ന് നാല്പത്തഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ചാലാണ് നെയ്യാറ്റിൻകര എത്തുക അന്നാണ് ഞാൻ ഇതിനെയൊക്കെക്കുറിച്ച് നന്നായി അറിയുന്നതും പഠിക്കുന്നതും